ഹലോ ഹലോ ആ ഹലോ ഞാനേ ഒരു വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണേ ബൊലെറോ ആണേ വണ്ടി എനിക്കതിൻ്റെ കുറച്ച് ഇൻ്റീരിയർ വർക്കൊക്കെ ചെയ്യാനുള്ളതാ അപ്പോൾ അതിൻ്റെ റെയ്റ്റും കാര്യങ്ങളൊക്കെ എത്രയാവും എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ആ മൊത്തത്തിൽ ചെയ്യാനാണ് ആ മതി മതി എനിക്ക് ആ നാല് അലോയ് വീൽസ് ഒന്ന് മാറണം

ആ ആയിക്കോട്ടേ ആ ആയിക്കോട്ടെ പിന്നെ എനിക്ക് ബ്രേക്ക് പാനൽ ബാക്കിലെ ലൈറ്റില്ലേ ബ്രേക്ക് ആ അതൊന്ന് ചെയ്ഞ്ച് ചെയ്യണം മൊത്തത്തിൽ വണ്ടിയൊന്ന് സെർവ്വീസ് ചെയ്തിട്ട് ഒന്ന് മൊത്തത്തിൽ വണ്ടിയൊന്ന് സെർവ്വീസ് ചെയ്തു തരണം സർവ്വീസെന്ന് ഉദ്ദേശിച്ചതെന്നുവെച്ചാൽ ആദ്യമൊന്ന് വാഷ് ചെയ്തിട്ട്

ആ അതെയതെ ഓഫ്റോഡ് അടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ടയറൊക്കെ കംപ്ലെയ്ൻ്റാണ് അപ്പോൾ ടയറൊന്ന് ജസ്റ്റ് നോക്കണം ആ ഓക്കേ പിന്നെ ഇൻ്റീരിയൽ വർക്ക് ആ ഫുള്ളായിട്ട് ചെയ്തോ ആ ബ്ലാക്ക് ബ്ലാക്കടിച്ചോ ആ കൂളിങ്ങ് ആ ഫ്രണ്ട് മാത്രം കൂളിങ്ങ് ചെയ്താൽ മതി ആണല്ലേ എന്നാൽ അത് നാലുംകൂടെ ചെയ്തോ നാല് മൊത്തതിൽ അത് ചെയ്തോ ആ ഓക്കേ ഓക്കെ ഓഹ് ഇത് ലാസ്റ്റ് എമൌണ്ട് എനിക്കെന്തായാലും വാട്സാപ്പ് ചെയ്തുതരില്ലേ ആ ഓക്കെ അ ഡിസൈൻ വർക്ക് ഇൻ്റീരിയലായിട്ട് ഒറ്റയ്ക്കുള്ളത് ചെയ്താൽ മതി

ഒരു ഗ്രേ കളറ് ആ ഓക്കെ ഓക്കെ ആ അതുമതി അത് ചെയ്തിട്ട് പിന്നെ വണ്ടി ജസ്റ്റ് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു സെറ്റാക്കിത്തരണം ഓഫ്റോഡ് പോവുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടുണ്ട് അത് ലാസ്റ്റ് എമൌണ്ടൊന്ന് മൊത്തത്തിൽ ടോട്ടലായിട്ട് പറഞ്ഞ് വാട്സാപ്പ് ചെയ്താൽ മതി

വിത്ത് ജി എസ് ടി അല്ലേ അ ഓക്കേ ഓക്കേ അപ്പോൾ ഇത് ആ അങ്ങാനെ അത് ലാസ്റ്റ് പ്രൈസേല്ല ഈ എമ്പത്തയ്യായിരം ഓക്കേ ഓക്കേ ആ ഓക്കേ ശരി